ഞങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം കൊല്ലം ജില്ലയിലെ തെക്ക് ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത് പക്ഷേ ഇവിടെ വന്യജീവികളുടെ ശല്യം കാരണം ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങിൽ തെങ്ങ് തെങ്ങ് കൃഷി ചെയ്യുന്നത് തേങ്ങ വെള്ളയ്ക്ക തൊട്ട് കുരങ്ങ് പറിച്ച് കളയും കുരങ്ങും അണ്ണാനുമായിട്ട് അത് അങ്ങനെ നശിപ്പിക്കും പിന്നെ നമുക്ക് ഭൂമിയിൽ കാച്ചിൽ ചേന ചേമ്പ് അങ്ങനെയുള്ളത് ചെയ്യാനായിട്ട് പന്നി സമ്മതിക്കില്ല കുരങ്ങും സമ്മതിക്കില്ല ഒരു കൃഷി നശിച്ച് കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കൃഷിയും പിന്നെ റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ കൊണ്ടാണ് ഒരുവിധം എങ്കിലും പിടിച്ച് നിൽക്കുന്നത് റബ്ബർ പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് വിലയിടിവുണ്ട് അതും മറ്റേ ഇന്ന് മുൻപോട്ട് പോ നീങ്ങുന്നില്ല ആ കർഷ് കൃഷിക്കാരൻ ആകപ്പാടെ ആ എല്ലാ രീതിയിലും പ്രതിസന്ധിയാണ് കൃഷിക്കാരന് കർഷകൻ്റെ നട്ടെല്ല് ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്താലും അവനൊരിക്കലും ലാ ഇപ്പം ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെ പകുതി പോലും കൂലി ആയിട്ട് പോലും കിട്ടുന്നില്ല എല്ലാം നഷ്ടത്തിലേക്കാണ് പോകുന്നത് ഒരു കൃഷിയും ഇന്ന് കശുമാവാണ് കശുമാവ് കൃഷി ചെയ്തും പിന്നെ അതിൽ നിന്നത് പാകമായി വരുമ്പോഴത്തേക്കത് അണ്ണാൻ കയറി തുരന്ന് അതെല്ലാം അങ്ങ് നശിപ്പിക്കും കുരങ്ങ് വേറെ രീതിയിൽ ചെയ്യും ഒരു ഒരു കൃഷിയും കൊണ്ടും ഒരു ഒരു കൃഷിയും ചെയ്യാൻ കർഷകന് കർഷകൻ്റെ നട്ടെല്ല് ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കടം കയറി കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടാണ് ഇന്ന് ഇന്നത്തെ പോക്ക് റബ്ബറിൻ്റെ വില ഇടിവ് അത് വേറെ ഒരു പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതും ഇന്ന് കുരങ്ങ് പച്ചക്കറി കൃഷി ചെയ്യാൻ പോലും കുരങ്ങ് സമ്മതിക്കുന്നില്ല ഒരു പയർ നട്ടാൽ കിളിച്ച് വരുന്നതിന് മുമ്പേ അവൻ അതിനെ തിന്നും ഒരു ഒരു രീതിയിലും കർഷകന് ജീവിക്കാൻ പറ്റില്ല കർഷകന് വീണ്ടും വീണ്ടും പാപ്പരാക്കുന്ന പരിപാടിയാണ്